എല്ലാ കുടുംബങ്ങളിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു കുടുംബതർക്കമാണ് സ്വത്ത് തർക്കം അതുപോലെ ഒന്ന് എൻ്റെ വീട്ടിനടുത്തുള്ള വീട്ടിലുണ്ടായി മുകളിലും താഴെയുമായി വീട് അതിനിടയിൽ അവരുടെ സ്ഥലം അതിനു വേണ്ടി രണ്ട് പേരും തർക്കം തുടങ്ങിയത് രണ്ട് കുടുംബത്തിലും ഒരു കുടുംബം അവര് ആരോടും പറയാതെ സ്ഥലം അളക്കാൻ ആളെ വിളിച്ചതും അളക്കാൻ തുടങ്ങിയതുമാണ് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് ഇടയാക്കിയത് രണ്ട് വീട്ടുകാരും കുടുംബക്കാരാണെന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിന് വേണ്ടി പ്രശ്നമാണ് ഒരു ദിവസം ആ സ്ഥലപ്രശ്നം വാക്ക് തർക്കത്തിലും പിന്നീടത് കയ്യാങ്കളിയാവുകയും ചെയ്തു അവിടെ പോലീസ് വരു കയും ആ കയ്യാങ്കളി അവിടെ തീർക്കുകയും ചെയ്തു പിന്നീട് ആ രണ്ട് കുടുംബം തമ്മിലുള്ള സ്ഥലപ്രശ്നം അവിടെ തീർന്നില്ല അവർക്ക് രണ്ട് പേർക്കും ആ സ്ഥലത്ത് ഒരുപാട് മരങ്ങളുള്ള സ്ഥലമാണ് വേണ്ടത് കാരണം അതൊക്കെ വിറ്റാൽ നല്ല പൈസ കിട്ടുന്ന മരങ്ങളായിരുന്നു അതുകൊണ്ടുതന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ലീഗലായി മുന്നോട്ട് പോവുകയും രണ്ട് കുടുംബങ്ങൾക്കും സ്ഥലം വീതിച്ച് കൊടുക്കുകയും ചെയ്തു മരങ്ങളും തുല്യമായി വീതിക്കുകയും ചെയ്തു പിന്നീട് അങ്ങനെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെട്ടു എന്നാലും രണ്ട് കുടുംബങ്ങളും ശത്രുക്കളെ പോലെയാണ് താമസിക്കുന്നത് അതിനിടെ ഒരു കുടുംബ ആ രണ്ട് കുടുംബത്തിലെ ഒരു കുടുംബം തനിക്ക് കിട്ടിയ സ്ഥലത്തിന് നടുവിലൂടെ അതിർത്തി മതിൽ കെട്ടുകയും കൂടുതൽ ശത്രുത കൂട്ടുകയും ചെയ്തു